ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ

ഗുഡ് ആഫ്റ്റർനൂൺ ആ ഞങ്ങള് വയനാട് കാണാൻ വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു പേര് നിഹാൽ അല്ല ഫ്രണ്ട്സുമായിട്ടാണ് ഞങ്ങളൊരു അഞ്ചാളുണ്ടാകും ഡേയ്റ്റ് നെക്സ്റ്റ് വീക്ക് ഞങ്ങള്ക്കൊരു ത്രീ ഡേയാണുള്ളത് അപ്പോള് ഏതൊക്കെ സ്ഥലം കവര് ചെയ്യാന് പറ്റും

ഓക്കെ

ആ ആ ഇതൊക്കെ ത്രീ ഡേ കൊണ്ട് കവറാകുമോ കവറാകും അല്ലേ ആ പിന്നെ പിക്കപ്പ് എവിടെ നിന്നാണ് കോഴിക്കോട് നിന്ന് പിക്കപ്പുണ്ടാകുമോ പിക്ക് ചെയ്യുമല്ലേ ആ ആ പിന്നെ വേറെയെന്തെങ്കിലും ഫോർമാലിറ്റീസുണ്ടോ ആ പിന്നെ വണ്ടി നിങ്ങള് അറേഞ്ച് ചെയ്യുമോ ആ വണ്ടി നിങ്ങള് അറേഞ്ച് ചെയ്യുമോ ഓക്കെ

ഓക്കെ അപ്പോള് എന്താണ് എത്ര ദിവസം മുന്നേ അറിയിക്കണം നിങ്ങളെ ആ അങ്ങനെ കൺഫോമാക്കിയാല് മതിയല്ലേ ആ ആ ഓക്കെ ഈ നമ്പറില് കോണ്ടാക്റ്റ് ചെയ്താല്പ്പോരെ